എൻ്റെ പ്രദേശത്ത് കോളേജുകൾ ഉണ്ടോയെന്ന് പറയുമ്പോൾ ഒരു രണ്ട് കോളേജുകൾ ഉണ്ട് പക്ഷെ അത് ഭയങ്കരമായിട്ട് ഗുണനിലവാരം ഉണ്ടെ കാരണം പുറത്തു നിന്നൊന്നും ആൾക്കാർക്ക് വന്നു പഠിക്കാൻ തോന്നാത്തത് നമ്മുടെ ഇവിടുത്തെ ഒരു പൈസ ചിലവിൽ ചുരുക്കി പഠിക്കുന്ന കൂട്ടൊരു കോഴ്സായിട്ടാണ് അത് വരുന്നത് അല്ലാണ്ട് ഒരു ഹൈ കോഴ്സുകളൊന്നും അവിടെ ലഭിക്കാറില്ല പിന്നെ എൻ്റെ വീട്ടിൽ കുടുംബങ്ങളിലൊക്കെ പഠിക്കുന്നത് എന്തെന്ന് വെച്ചാൽ എൻ്റെ അങ്ങിനെയാരും പഠിക്കുന്നില്ല കാരണം എൻ്റെ സി ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് പറയുമ്പോൾ പുറത്തേയ്ക്കാണ് പോയി പഠിക്കുന്നത് കാരണം നമ്മൾ ഇവിടെയെന്നു പറയുമ്പോൾ ഒരു ഗുണനിലവാരം കുറവ് എന്നല്ല എന്നാലും നമുക്ക് വേണ്ടൊരു എജ്യൂക്കേഷൻ ലഭിക്കാത്തതു കൊണ്ടു തന്നെ നമ്മൾ പുറത്ത് പോയി പഠിക്കുന്നത് അത്യാവശ്യം നല്ല ഉയർന്ന കോളേജുകൾക്കോ നമ്മുടെ കോളേജുകളിൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഒരു ഒരു ദാരുണമായ അവസ്ഥയാണത് കാരണം നമ്മുടെ സ്വന്തം നാട്ടിലുള്ളവർക്ക് പോലും അവിടെ പഠിക്കാൻ തോന്നാണ്ട് വരുന്ന ഒരവസ്ഥയാണ് സൊ നമ്മൾ ഒരു നല്ല ഉയർന്ന എജ്യൂക്കേഷന് വേണ്ടി പുറത്തായിരിക്കും പോയി പഠിക്കുന്നത് നമ്മൾ